പട്ടണത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന യുവതലമുറക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടാനാണ് എല്ലാവരും താൽപര്യപ്പെടുന്നത് പക്ഷേ എല്ലാവർക്കും അത് കിട്ടിയെന്നിരിക്കില്ല പട്ടണത്തിലെ ജീവിതരീതി വച്ച് നോക്കുമ്പോൾ ഒരു ഒരു കുടുംബം ആകുമ്പോൾ അവർക്ക് ജീവിതത്തില് നിത്യ ഉപയോഗ സാധനങ്ങളെ അതുപോലെ എല്ലാ സാധനങ്ങളും പൈസ കൊടുത്ത് വാങ്ങുവാനും അവരുടെ ചിലവിന് ഒരുപാട് പൈസക്ക് കൂടുതൽ പൈസ ചിലവാക്കേണ്ടി വരുന്നു എന്തെന്നായാലും പട്ടണങ്ങളിലെ ജീവിതം എപ്പോഴും നല്ലതാണ് പിന്നെ എപ്പോഴും ഒരു ജീവിതപങ്കാളിയെ പട്ടണത്തിലെ തന്നെ കിട്ടണമെന്ന് നമുക്ക് കിട്ടുവാൻ നടക്കുന്ന കിട്ടുന്ന കാര്യം വല്യ ബുദ്ധിമുട്ടുള്ള കാര്യമാ അത് കിട്ടുകാണെങ്കിൽ തന്നെയും അവർ ഒന്നിച്ചൊരു ഒരേ രീതിയിൽ ജീവിത പങ്കാളിയുമായിട്ട് യോജിച്ച് പോവുകയാണെങ്കിൽ അവരുടെ ആ കുടുംബ ജീവിതത്തില് വല്യ ബുദ്ധിമുട്ടുകളിലൊന്നും പോവാൻ സാധിക്കുകയില്ല അതായത് അവരുടെ ചിലവുകളും വരുമാനം അനുസരിച്ച് ചിലവ് ചെയ്യുക പിന്നെ ഓരോ കാര്യങ്ങൾക്ക് മുന്നോട്ട് കിടക്കുന്ന ഓരോ പ്രശ്നങ്ങളും രണ്ട് പേരും ഒരുപോലെ നോക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ ജീവിക്കാം പിന്നെ പട്ടണത്തിൽ ജീവിച്ച മനുഷ്യർക്ക് നാട്ടിലെ മറ്റ് ഇതിലുള്ള പിന്നെ വിവാഹത്തില് ഏർപ്പെടാൻ പിന്നെ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവര് വിവാഹം എടുക്കുവാണെങ്കില് അവരുടെ ജീവിത ശൈലികളെ അവരുടെ പിന്ന വസ്ത്രധാനങ്ങളെ അതുപോലെ ഓരോ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടിൽ എത്തും എന്ത് പറഞ്ഞാലും ഗ്രാമങ്ങളിലത്തെയാണ് എപ്പോഴും നല്ലത് എത്രയും ഓരോ കാര്യങ്ങളിലും ഓരോ ആൾക്കാരെ കാണാനും ഓരോ ആൾക്കാരുമായിട്ട് സംസാരിക്കുവാനും ഒരാവശ്യങ്ങൾക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ പട്ടണത്തിലുള്ളവർക്ക് എളുപ്പം കുറെ കാര്യം സാധിക്കാൻ കാര്യം സാധിക്കുന്നുണ്ട്